എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരം ഇരുപത്തൊൻപത്ത് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുപത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട്